ഗെയിമിങ്ങ് ഓർമ്മ എന്നാൽ നമ്മൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ഏറ്റവും കൂടുതലായിട്ടും ഓർമ്മയുള്ളത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പണ്ടൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ഒക്കെ കഴിഞ്ഞ് എന്താണെന്ന് വച്ചാൽ നേരെ ഗ്രൗണ്ടിലേക്ക് പോകും എന്നിട്ട് അവിടെ പോയി എല്ലാവരേയും വിളിച്ച് കൂട്ടുന്നു പിന്നെ ഓരോന്നൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കളിക്കുന്നത് ഓരോരുത്തരെ വിളിച്ച് കൂട്ടിയിട്ടൊക്കെ അപ്പോൾ തന്നെ വയലും അതൊക്കെ സെറ്റ് ചെയ്യും അങ്ങനെ അതിൽ ഓരോ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഓർമ്മയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഴ്ച്ച വീണിട്ടുണ്ട് ആ ഗെയിംസ് കളിക്കുന്ന സമയത്ത് അങ്ങനെ മുറിഞ്ഞൊരു കുറച്ച് ഡേയ്ഞ്ചറായിട്ടുണ്ട് അത് കല്ലിൽ തട്ടി തലയൊക്കെ തട്ടിയിട്ട് കുറച്ച് മുറിഞ്ഞിട്ടും അങ്ങനത്തെയൊക്കെ പ്രശ്നമായിട്ടുണ്ട് അതൊരോർമ്മയുണ്ട് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഗെയിമിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ പെട്ടെന്നതാണ് ഓർമ്മ വന്നത് പിന്നെ ചലഞ്ചിങ്ങായിട്ടുള്ളതും ഉണ്ട് അത് കോളേജ് ടൈമിൽ ചലഞ്ചിങ്ങായിട്ടുള്ള ഉണ്ട് അത് അത് മത്സരിച്ച് ജയിച്ച് കുറേ ക്ലാസുമായിട്ട് ക്ലാസ് ബേസിലായിട്ട് മത്സരിച്ച് ജയിച്ച് ഒപ്പമെത്തി അതൊക്കെയാണ് കുറച്ച് നല്ലൊരു ഓർമ്മ പറയാൻ